ഹലോ ആരാണ് ആ പറയൂ ആ കാണുമല്ലോ ഉം ഉം നിങ്ങൾ ഏത് കാർഡാണ് എ പി എൽ ആണോ ബി പി എൽ ആണോ ബി പി എല്ല് നിങ്ങളെ കാർഡിൻ്റെ നിറമേതാണ് നീല നിറം അപ്പം നീല നിറം ആവുമ്പഴത്തേക്കും പത്ത് എമ്പത്തഞ്ച് രൂപ അടുപ്പിച്ച് വരും അത് അവിടെ വരുന്ന സമയത്ത് നിങ്ങളത് ആ കാർഡ് നമ്പരെല്ലാം അടിച്ച് നോക്കിയിട്ട് എത്ര കിലോ വീതം ഉണ്ട് എന്നറിഞ്ഞിട്ടേ നമുക്ക് തരാൻ പറ്റൂ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം റേഷൻ വാങ്ങിയില്ലായിരുന്നോ കഴിഞ്ഞ പ്രാവശ്യത്തെ റേഷൻ എന്താണ് നിങ്ങൾ വാങ്ങാഞ്ഞത് എല്ലാ മാസവും അത് കറക്റ്റ് ഏത് മാസവും കറക്റ്റ് ആയിട്ട് അത് വാങ്ങിച്ചുകൂടേ എല്ലാ മാസവും കാരണം നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു റേഷൻ കടയിൽനിന്ന് വേടിക്കണം ഇപ്പോൾ എല്ലാം സ്മാർട്ട് സിസ്റ്റം അല്ലേ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റേഷൻ കടയിൽനിന്ന് വേടിക്കാമല്ലോ

നിങ്ങൾ നിങ്ങൾ ഈ നൂറ്റാണ്ടിൽ ഒന്നും അല്ലേ ജീവിക്കുന്നത് നമ്മൾ റേഷൻ കടയുടെ ടൈമിംങ് ഒക്കെ മാറുന്നതൊക്കെ ഫോണിൽ മെസ്സേജും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടല്ലോ അതൊക്കെ ഒക്കെ ചെക്ക് ചെയ്യണം ഇന്ന് ഇപ്പോൾ എന്തായാലും പത്ത് മണി തൊട്ട് എന്തായാലും റേഷൻ കട സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് റേഷൻ കട സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വരുക പന്ത്രണ്ടര വരെ ഉണ്ട് അതിന് ശേഷം ലഞ്ച് ബ്രേക്ക് ആയിരിക്കും പിന്നെ രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഏഴ് മണി വരെ വൈകുന്നേരവും ഉണ്ട് ഞായറാഴ്ച ഒക്കെ തിരക്കാ നിങ്ങൾ മാസാവസാനം ഒന്നും വരാൻ നിൽക്കാതെ നിങ്ങൾ മാസം ആദ്യമേയോ അല്ലെങ്കിൽ പതുക്കെ നടുക്കത്ത സമയങ്ങളിൽ ഒക്കെ നോക്കി നിങ്ങൾ വരണം അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഇതെല്ലം കിട്ടും ആ പച്ചരിക്ക് പച്ചരിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് പച്ചരി ഒക്കെ തീർന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് വരണം വരണം നിങ്ങളുടെ നിങ്ങളുടെ റേഷൻ നിങ്ങൾ വേടിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുള്ളതാണ്